നമ്മുടെ ആരോഗ്യമല്ലേടാ നമ്മുടെ സമ്പത്ത് അതാണെങ്കിൽ നമ്മൾ ഒരു മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കണേ എന്തായാലും നമ്മൾ ആരോഗ്യം ഒക്കെ നോക്കിയലേ പറ്റത്തുള്ളൂ കൂടുതൽ ആയുസ്സ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആരോഗ്യം മര്യാദയ്ക്ക് നോക്കി നമുക്ക് ഭാവിയിൽ വല്ല പ്രശ്നങ്ങൾ ഇല്ലാതെ നമുക്ക് നോക്കി പോവാം അപ്പം അതിന് വേണ്ട കുറച്ചു കാര്യങ്ങളെക്കെ നമ്മൾ എടുക്കണം ഇപ്പം നമ്മൾ ഹൃദയത്തിനെ പറ്റിയുള്ള ഹൃദയത്തിന് നല്ലതായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം അപ്പോൾ പച്ചക്കറികൾ നട്ട്സ് പിന്നെ ഈ മീൻ ഒമേഗ മീനിലെക്കെയാണെ ഒമേഗാ ത്രീയെക്കെ ഉണ്ട് ചാളയിലൊക്കെ ആണെങ്കിൽ കുറേ ഒമേഗാ ത്രി നല്ല ആരോഗ്യത്തിന് നല്ലതായ മീനാണ് നമ്മൾ കഴിക്കുക പിന്നെ ആണെങ്കിൽ ഈ കൊളസ്ട്രോള് വരുന്ന സാധനങ്ങളൊക്കെ ഒന്നും കഴിക്കത്തില്ല ഈ ഫാറ്റ്സ് സാച്ചുറേറ്റഡ് ഫാറ്റൊക്കെ അതൊക്കെ ഒന്നും നമ്മൾ കഴിക്കരുത് അതൊക്കെയാണെങ്കിൽ നമ്മുടെ നെഞ്ചിൽ ഒരു തടസ്സമായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നൊക്കെ മരിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പിന്നെ ആണെങ്കിൽ പഞ്ചസാരയും ഉപ്പൊക്കെ കഴിക്കുന്നതൊക്കെ കുറച്ചു നമ്മൾ കുറയ്ക്കണം എന്നാലാണ് നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ മര്യാദയ്ക്ക് നിൽക്കുക ഒരാളിൽ നല്ല ബാലൻസോടെ ഇതെക്കെ നിൽക്കത്തുള്ളൂ പിന്നെ നമ്മൾ ആണെങ്കിൽ മു കുറേ എക്സർസൈസൊക്കെ ചെയ്യണം എക്സർസൈസൊക്കെ ചെയ്താലാണ് നമ്മുടെ ശരീരമൊക്കെ മര്യാദയ്ക്ക് അനങ്ങത്തുള്ളു നമ്മൾ ഒക്കെയാണെങ്കിൽ നടക്കാനോ അല്ലെങ്കിൽ ഓട്ടോ അല്ലേ എന്തെങ്കിലും സ്വിമ്മിംഗ് സൈക്കിളിങ്ങോ എന്തേ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി അപ്പം അതൊക്കെ ചെയ്താൽ നമ്മുടെ ബ്ലഡിൽ സർക്കുലേഷനും പിന്നെ ശ്വാസത്തിന്റെ നമ്മുടെ ലങ് കപ്പാസിറ്റി ലംഗിൽ എത്ര ലംഗസിൽ എത്ര ഓക്സിജന് നിൽക്കുമെന്നുള്ള അതൊക്കെ നമ്മൾക്ക് അത് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും അതുമാത്രം അല്ല നല്ല കഠിനമായ ആഴ്ചയിൽ വല്ലപ്പോഴും ഒക്കെ ഒരാൾ കഠിനമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മുടെ ശരീരത്തിന്റെ കപ്പാസിറ്റിയൊക്കെ കൂടും പിന്നെ ഈ ശക്തി കൂട്ടാനായിട്ടുള്ള ജിമ്മിലൊക്കെ പോവുകയോ ഒക്കെ ആണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും അതൊക്കെ എന്തേലും അല്ലേ ശനിയാഴ്ചയോ ഞാറാഴ്ചയോ എല്ലാം ചെയ്താൽ മതി പിന്നെ ആണെങ്കിൽ സ്ട്രെസ്സ് സ്ട്രെസ്സൊക്കെ വളരെ ലിമിറ്റ് വേണം സ്ട്രെസ് എടുക്കരുത് സ്ട്രെസ്സിന്റെ ഒക്കെ എന്തെങ്കിലും സാഹചര്യം വരുവാണെങ്കിൽ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക ബ്ലഡ് പ്രഷറൊക്കെ കൂടി അത് ഭാവിയിലൊക്കെ വളരെ പ്രശ്നങ്ങളൊക്കെ വരും ഹാർട്ടിനൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാന് സ്ട്രെസ് പരമാവധി ഒഴിവാക്കന് നോക്കുക പിന്നെ യോഗയൊക്കെ ചെയ്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആണെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ ശാന്തമായിട്ട് ഇരിക്കാന് നമുക്ക് സാധിക്കും അതു മാത്രമല്ല നല്ല ബ്രീതിംഗ് എക്സർസൈസൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ലങ്സിന് വളരെ ആരോഗ്യം ഒക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഉള്ളയിടത്തു നിന്ന് നമുക്ക് സാധിക്കും പിന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്തു ആണെങ്കിലും നമുക്ക് സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഉറക്കം ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നാല് നാല് അഞ്ച് മണിക്കൂർ ഉറക്കം കൊണ്ടൊന്നും നമ്മുടെ നമ്മൾക്ക് നമ്മടെ ശരീരത്തെ ഓടിക്കാൻ നമുക്ക് സാധിക്കത്തില്ല പരമാവധി ഏഴ് എട്ട് മണിക്കൂർ നല്ല ഒന്നാം തരം ഉറക്കം എല്ലാ ദിവസം വേണ്ടതാണ് അല്ലെങ്കിൽ അത് എങ്കിലും നമുക്ക് ഹൃദയത്തിന് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ വരെ നമുക്ക് വന്നു എന്നൊക്കെ വരും അപ്പം ഉറക്കം വളരെ ആവശ്യപ്രദമാണ് പിന്നെ ഒരു തക്ക ഒരു ബെഡ് ടൈം റുട്ടീൻ വേണം എന്നു വച്ചാൽ എപ്പോഴാണ് ഉറങ്ങുന്നത് എപ്പോഴാണ് എണിക്കുന്നത് ഇത് എപ്പോഴും ഒരു കൃത്യത വേണം അതായത് എപ്പോഴും മഹാരാജ്യത്ത് ആ ജോ ആദ്യത്തെ ദിവസം എന്നാൽ ഒമ്പത് മണിക്ക് ഒമ്പത് മണിയോ അല്ലേ പത്ത് മണിക്കെല്ലാം ഉറങ്ങുകയാണെങ്കിൽ പിന്നെ അടുത്ത ദിവസം ചുമ്മാ പതിനൊന്നും പന്ത്രണ്ട് മണിക്കൊന്നും ഉറങ്ങിയിട്ട് കാര്യം ഇല്ല ഇത് എപ്പോഴും കൃത്യതയോടെ ആവണം പിന്നെ കിടക്കാന് പോകുന്ന നേരത്ത് വളരെ ഹെവി ആയിട്ടുള്ള ആഹാരം ഒന്നും കഴിക്കരുത് ഉറക്കത്തിന് മുമ്പ് അതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ആഹാരം മാത്രമേ കഴിക്കാവുള്ളൂ എന്നാലാണ് സ്വസ്ഥമായ ഉറക്കം കിട്ടത്തുള്ളു പിന്നെ ക്യഫീന് അത് ഉറക്കത്തിന് മുമ്പ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ ബ്ലഡിൻ്റെയൊക്കെ സെർക്കുലേഷൻ കൂട്ടാൻ പറ്റത്തുള്ളൂ പിന്നെ പിന്നെ നമ്മടെ സ്കിന്നൊക്കെ മര്യാദയ്ക്ക് ഇരിക്കണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടണമെങ്കിൽ വെള്ളം മര്യാദയ്ക്ക് കുടിക്കണം പിന്നെ ഓരോ ദിവസം ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം എങ്കിലും കുടിക്കണം പിന്നെ മധുരം ഉള്ള കുടിക്കുന്ന സാധനങ്ങളെല്ലാം അത് എല്ലാം പരമാവധി ഒഴിവാക്കാൻ നോക്കുക പിന്നെ വെയിറ്റ് ഓവർ വെയിറ്റ് ആവരുത് ഇത് ഓവർ വെയറ്റായാൽ റിസ്ക് ബ്ലഡ് പര്ഷർ കൂടാനും ഡയബിറ്റീസ് ഉണ്ടാവാനും കൊളസ്ട്രോളൊക്കെ കൂടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇത് പരമാവധി ഇതും ഒക്കെ എല്ലാം ഒഴിവാക്കാന് നോക്കുക പിന്നെ ഹെൽത്തി ഡയറ്റ് പച്ചക്കറികളും ഉള്ള എല്ലാ ഡയറ്റൊക്കെ പച്ചക്കറി എല്ലാം ഒക്കെ ഉൾപ്പെടുന്ന എല്ലാ ഡയറ്റുകളും നോക്കാൻ സാധിക്കണം നോക്കണം പിന്നെ കഴിക്കുന്ന മീൽസ് എല്ലാം എന്തെക്കെയാണ് കഴിക്കണം എന്ന് അറ്റ്ലീസ്റ്റ് ചെറിയ ഒരു നോട്ടപ്പ് ഉണ്ടാക്കണം എന്നാലാണ് നമ്മൾ ഫിറ്റ്നസ് കൂൾസൊക്കെ നേടാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ പിന്നെ സ്മോക്കിങ്ങും ആൽക്കഹോള് ഇത് ലഹരി വസ്തുക്കൾ എല്ലാം നിർത്തുക ഇത് ലോങ്ങ് ടേമിൽ ശരീരത്തെ നമ്മൾ നന്നായിട്ട് ബാധിക്കും ഇത് ഒട്ടും കൊള്ളത്തില്ല പരമാധി ഇത് അഥവാ കുടിക്കേണ്ട ഇത് പരമാവധി പയ്യെ പയ്യെ പയ്യെ കുറയ്ക്കാനായിട്ട് നോക്കാം നമ്മൾക്ക് പിടി എന്നൊന്നും ഇത് കുറയ്ക്കാൻ പറ്റത്തില്ല അഡിക്ഷനൊക്കെ പിടി എന്ന് മാറുന്ന സാധനമല്ല നമ്മൾ പയ്യെ ഒന്നു കുറയ്ക്കാൻ പറ്റത്തുള്ളൂ നമ്മൾക്ക് നമ്മുടേത് വിൽപവറ് കൂട്ടി നമുക്ക് ഇത് ആ അഡിക്ഷനൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുക പിന്നെ പുറത്തെക്കെ ഇറങ്ങി നമ്മൾക്ക് പുറത്തെക്ക ഇറങ്ങണെങ്കിൽ നേച്ചറിൽ നമ്മൾ ടൈം സ്പെൻ്റ് ചെയ്യൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ സ്ട്രെസ്സൊക്കെ വളരെ നന്നായിട്ട് കുറയും ബ്ലഡ് പ്രഷറ് കൂടി ചുമ്മ എല്ലാം വളരെ ശാന്തമായിട്ട് ഇരിക്കുന്നു പറയും പിന്നെ എവിടെ എങ്കിലൊക്കെ പാർക്കിലൊക്കെ വോക്ക് നടക്കാനായിട്ട് പോവുകയും നമ്മൾ നേച്ചറായിട്ട് നമ്മുടെ നമ്മൾകൊക്കെ പ്രകൃതി ആയിട്ട് നമ്മൾ പരമാവധി ബന്ധപ്പെടാൻ നോക്കണം പിന്നെ ഒരോ പിന്നെ വെയിൽ വെയിൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഡെയിലി കൊള്ളണം കാരണം എന്ന് വച്ചാൽ വിറ്റാമിൻ ഡി മെയിൻ സോര്സ് എന്നു വച്ചാൽ മെയിൻ മെയിൻ ആയിട്ട് നമുക്ക് വിറ്റാമിൻ ഡി കിട്ടണമെങ്കിൽ നമ്മൾ അത് വെയിലത്ത് പോയി നിൽക്കണം എന്നാലാണ് വിറ്റമിൻ ഡി കിട്ടത്തുള്ളൂ അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ എല്ലാം നീ ഓര്ത്തിരിക്കണം ഓര്ത്തിരുന്നാൽ നിനക്ക് ഭാവിയിൽ നല്ല ഉപകാരപ്പെടും അപ്പം ഇതൊക്കെ എല്ലാം വച്ചു ഇതൊക്കെ എല്ലാം നോക്കി ജീവിക്കാന് നോക്കുക മനസ്സിലായോ അപ്പം ഓക്കെ